എനിക്ക് എന്തെങ്കിലും പ്രത്യേക കഴിവുകളോ ശേഷികളോ ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ കുഞ്ഞി കുഞ്ഞി കാര്യങ്ങൾ എനിക്ക് അതെൻ്റെ കഴിവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു കാര്യം പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ള കഴിവെനിക്കുണ്ടെന്ന് ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം എളുപ്പം പറയുമ്പോൾ തന്നെ അത് ഗ്രാസ്പ്പ് ചെയ്തെടുക്കാനുള്ള ഒരു കഴിവെനിക്ക് ഉണ്ടെന്ന് പറയാറുണ്ട് അതെനിക്ക് പഠിക്കുന്ന കാര്യത്തിലായാലും കുറേ കാര്യങ്ങളിലും എന്നെ സഹായിച്ചിട്ടുള്ളൊരു കാര്യമാണ് പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരും ഒപ്പം പഠിക്കുന്ന സഹപാഠികളും പറഞ്ഞിട്ടുള്ളൊരു കഴിവെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പ്രസൻറ്റേഷൻ സ്കിൽസ് ആണ് ഇപ്പം ഞാനൊരു കോളേജ് വിദ്യാർത്ഥിനി ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ പ്രസൻറ്റേഷൻസ് നടത്തേണ്ട ആവശ്യം വരാറുണ്ട് പ്രോജെക്റ്റിൻ്റെ കാര്യത്തിലായാലും സെമിനാറിൻ്റെ കാര്യത്തിലായാലും അപ്പം പ്രസൻറ്റേഷൻ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം അങ്ങനത്തെയൊരു സ്കിൽ എനിക്ക് ഉണ്ടെന്ന് ഞാനും മനസ്സിലാക്കിയത് ഈയിടെയാണ് കാരണം എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ളൊരു ആളാണ് ഒരു കാര്യം കഴിവുണ്ടെങ്കിൽ തന്നെ കഴിവുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിച്ചത് ഈ കോളേജിലായത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ എന്ത് പ്രെസൻറ്റേഷൻ വന്നാലും ഞാനൊരു കാര്യത്തിലും സ്റ്റേജിൽ കയറിയിട്ട് സംസാരിക്കാനോ അതിന് ഒന്നിനും നിൽക്കാറില്ല ഇപ്പോൾ അത് നിർബന്ധമായ സ്ഥിതിക്ക് എനിക്ക് വേറെ നിവൃത്തിയില്ലാത്ത അവസ്ഥ വരുകയാണ് ഉണ്ടായത് അപ്പം അത്തരം പ്രസൻറ്റേഷൻ്റെ സമയത്ത് ഞാനിങ്ങനെ പേടിച്ച് പേടിച്ച് നിന്നാലും അവസാനം ഞാൻ പോയി പ്രെസൻറ്റ് സ്റ്റേജിൽ മൈക്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ആൾക്കാരൊക്കെയും ഭയങ്കരമായിട്ട് അപ്പ്രീഷിയേറ്റ് ആണ് ചെയ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഇപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഓരോ പ്രസൻറ്റേഷൻസ് വരുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഹരം പോലെയാണ് കാരണം ഒരു പ്രാവശ്യം അപ്രീസിയേഷൻ കിട്ടുന്ന സമയത്ത് എൻ്റെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കൂടുകയാണ് ഇനിയും പ്രസൻറ്റേഷൻസ് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് എപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാലും ഞാനതിന് മുന്നിട്ട് നിൽക്കാറുണ്ട് അങ്ങനെയാണ് ഞാൻ ആ സ്കിൽ വികസിപ്പിക്കുന്നത് പിന്നെ പിന്നെ കുഞ്ഞു കഴിവുകളെന്ന് വെച്ച് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ് അപ്പം എനിക്ക് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ് മലയാളമല്ല ഇംഗ്ലീഷ് ആണ് എഴുതുന്നത് ഇംഗ്ലീഷിൽ ഇങ്ങനെ കുഞ്ഞി കുഞ്ഞി പാരഗ്രാഫ്സ് പോലെ എഴുതാറുണ്ട് എന്നിട്ട് ഞാനിങ്ങനെ എഴുതിയിട്ട് ഞാനെന്റെ ഫ്രണ്ട്സിന് അയച്ച് കൊടുക്കും അപ്പോൾ ഫ്രണ്ട്സ് പറയും നിനക്ക് എഴുതാൻ കഴിവുണ്ടല്ലോ എന്ന് എന്റെയടുത്തിങ്ങനെ ചോദിക്കാറുണ്ട് തമാശക്കണോ എന്ന് അറിയില്ല പക്ഷേ വളരെ വലിയ എഴുത്തൊന്നും അല്ല ഒരു കുഞ്ഞു കുഞ്ഞു പാരഗ്രാഫ്സ് നല്ല ഇതിൽ എഴുതാറുണ്ടെന്ന് അവർ പറയാറുണ്ട് അത് ഞാൻ വികസിപ്പിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ദിവസവും ഡയറി എഴുതുന്ന ഒരാളാണ് അപ്പോൾ ഡയറി എഴുതുന്നത് എല്ലാവരും എഴുതുന്നതാണ് പക്ഷേ എങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെയും ഞാൻ കുഞ്ഞ് കുഞ്ഞ് പാരഗ്രാഫ്സ് ഡയറി അല്ലാണ്ട് ഇരുന്നെഴുതി ബുക്കുകളിലെഴുതാറുണ്ട് അതേപോലെ തന്നെ പിന്നെ കഴിവുകൾ പറയുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ ഹോബി ഡാൻസിങ്ങ് ആണ് ഡാൻസ് കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഡാൻസ് ഞാനും എന്നിൽ കണ്ട് പിടിച്ചിട്ടുള്ളൊരു കഴിവാണ് അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സും പാരന്റ്സ് ഒക്കെയും എന്റെയടുത്ത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കഴിവാണ് ഡാൻസ് അപ്പോൾ അതെങ്ങനെ വികസിപ്പിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റുന്ന കിട്ടുന്ന എല്ലാ ഓപ്പർച്യുണിറ്റിസും ഞാൻ ഭയങ്കരമായിട്ട് ഉപയോഗിക്കും കി ഡാൻസ് കളിക്കാൻ കിട്ടുന്ന എല്ലാ ചാൻസും ഞാൻ ഉപയോഗിക്കാറുണ്ട് ഒരു ചാൻസ് പോലും കളയാതെ കളയാറ് കളയാറില്ല എപ്പോൾ ഒരു പരിപാടി കോളേജിൽ വരുകയാണെങ്കിലും ഞാൻ ഡാൻസിന് നിൽക്കാറുണ്ട് ഇപ്പോൾ എന്ത് ഡാൻസ് പരിപാടി വരുമ്പോളും ഫസ്റ്റ് ടീച്ചർമാർ എൻ്റെ പേരാണ് വിളിക്കുക അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഞാൻ ഒഴിവാക്കാറില്ല അതേപോലെ തന്നെ ഞാൻ വീട്ടിലും പ്രാക്റ്റീസ് ചെയ്യാറുണ്ട് ഇതുവരെയും പഠിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടിയിട്ടില്ല പക്ഷേ ഇനി കോളേജ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡാൻസ് പഠിക്കാനായിട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്